ഹലോ നമ്മൾ ടൂറിസ്റ്റ് ആണേ നിങ്ങൾ ഗൈഡ് അല്ലേ ആ അപ്പോൾ നമുക്ക് കേരളത്തിലെ അതായത് മൂന്നാർ ലക്കിടി പിന്നെ അങ്ങനെയുള്ള ഹിൽ സ്റ്റേഷൻസ് ഒക്കെ കാണാൻ വേണ്ടിയാണേ അപ്പോൾ അതൊക്കെ ഇപ്പം ഓപ്പൺ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചതായിരുന്നു

ആണല്ലേ ആ ആ ആ ആണല്ലേ ആ ആ അപ്പം നമുക്ക് കോസ്റ്റ് ഒക്കെ എങ്ങനെ വരും നമ്മൾ വണ്ടിയും കൊണ്ടൊന്നുമല്ല വരുന്നത് അപ്പം നമ്മൾ ഇപ്പം നമ്മൾ വിളിക്കുന്നത് എവിടെനിന്നാണ് വെച്ച് കഴിഞ്ഞാൽ ദുബായിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പം നമുക്ക് അവിടെ കുറച്ച് നമുക്ക് കുറച്ച് പിന്നെ ഇതുണ്ട് അതായത് നമുക്ക് കുറച്ച് ലീവ് ഉണ്ട് അപ്പോൾ ആ ലീവിന് വന്നിട്ട് പിന്നെ കുറച്ച് സ്ഥലമൊക്കെ കാണാമെന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഫാമിലിയും കുട്ടികളും എല്ലാവരും കൂടായിട്ട് വരുന്നതാണേ

ഞാൻ നെക്സ്റ്റ് മന്ത് വരും ഫസ്റ്റ് വരും ഇന്നിപ്പം റ്റൊൻടി റ്റു ആയില്ലെ ഏ നമ്മളൊരു ഏഴ് പേരെന്തായാലും ഉണ്ടാവും രണ്ട് കുട്ടികളും അഞ്ച് അല്ലാത്ത ആൾക്കാരും

വണ്ടി നമുക്ക് വണ്ടിയൊക്കെ വേണ്ടി വരും കാരണം നമ്മൾ പിന്നെ അവടെ വന്നിട്ട് നമുക്ക് ഡ്രൈവറും വേണം അതാണ് ഉം ഇല്ലില്ലില്ല കുഴപ്പമൊന്നുമില്ല റേറ്റ് എല്ലാം നമുക്ക് വിഷയമല്ല കേട്ടോ ഇന്നോവ ആ ഇന്നോവ മതി ഇന്നോവ മതി നല്ലവണ്ണം വണ്ടി അതായത് അത്യാവശ്യം നല്ലവണ്ണം ഇതുള്ള ഡ്രൈവർ വേണം കേട്ടോ കാരണം നമ്മൾ കുട്ടികളും മക്കളൊക്കെയായിട്ട് വരുന്നതല്ലേ നമുക്ക് ആ ഒരു ആ നമുക്കതൊരു പിന്നെ അതൊരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതും കൂടെയൊക്കെ നോക്കിയിട്ട് ഓക്കെ ആണല്ലേ ആ അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത മാസം ഫസ്റ്റ് വരും നിങ്ങൾ ഞങ്ങളുടെ താമസം ഫുഡ് അതേപോലെ വണ്ടി അതായത് ക്യാബ് ഡ്രൈവർ എല്ലാം ഒന്ന് സെറ്റ് ആക്കി തരണം കേട്ടോ ഇങ്ങോട്ട് നിങ്ങൾക്കെന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തുതരാം ഓക്കെ എന്നാൽ ഓക്കെ ഓക്കെ ഓക്കെ